നമ്മുടെ ഈ ഇന്നത്തെ ഈ ലോകത്ത് നമ്മുടെ ഇതുപോലെ ഉള്ള ആപ്പുകളുടെയോ അഥവാ മെഷീൻ വിവർത്തനത്തിൻ്റെയോ ഉപയോഗം വളരെ കൂടിയിരിക്കുന്നൊരു കാലമാണിത് കാരണം ഇന്ന് ഞങ്ങളുടെ പഠനത്തിലാവട്ടെ ഞങ്ങളുടെ മറ്റു ജീവിതത്തിലാവട്ടെ ഈ മെഷീൻ വിവർത്തനം അഥവാ ഗൂഗിൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് പോലെയുള്ള കാര്യങ്ങളുടെ ഒരു വലിയ ഒരു വലിയ ഷെയറ് വളരെ വലുതാണ്

ഈ മെഷീൻ വിവർത്തനത്തിന് ഈ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ചെയ്ത് നമ്മുടെ ജോലിഭാരം കുറച്ച് കുറയ്ക്കാനായിട്ട് സാധിക്കും അതുപോലെതന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് കൂടുതൽ സമയലാഭവും നമുക്ക് മറ്റു പ്രാധാന്യമുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ സമയം കൂടുതൽ കൊടുക്കാനും നമ്മുടെ കോൺസെൻട്രേഷനും എല്ലാം കൊടുക്കാൻ നമുക്ക് സാധിക്കും കൂടുതലായും ഈ മെഷീൻ വിവർത്തനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ചാറ്റ് ജി പി ടി ഗൂഗിൾ മാപ്പുകളൊക്കെ ഗൂഗിൾ മാപ്പുകൾ ഒക്കെ ഞാനെൻ്റെ അനുദിന ജീവിതത്തിലുപയോഗിക്കുന്നൊരു വളരെ കാര്യമാണ് കാരണം ഞാൻ ഒരു കാറുകളോ കാറുകളോ ബൈക്കുകളോ ഉപയോഗിക്കുന്നൊരു വ്യക്തിയാണ് അതുപോലെതന്നെ ഗൂഗിൾ മാപ്പുകളും മെഷീൻ വിവർത്തന സംബന്ധമായ മറ്റാപ്പുകളും എനിക്ക് ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട് ഗൂഗിൾ മാപ്പുകളെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാൻ അറിയാത്തൊരു സ്ഥലത്തേക്ക് പോകുന്ന സാഹചര്യത്തിലാണ് ഞാൻ ഗൂഗിൾ മാപ്പുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ഗൂഗിൾ മാപ്പുകളിലൂടെ നമുക്ക് ഈ സ്ഥലത്തിൻ്റെ ഒരു ഏകദേശ വിവരം കിട്ടുകയും ഈ സ്ഥലം എങ്ങനെയാണ് ഇരിക്കുന്നതെന്നൊരു ഏകദേശ ഊഹം കിട്ടുകയും ചെയ്യുന്നുണ്ട് അതുപോലെതന്നെ മറ്റുള്ളവരിൽ ആശ്രയിക്കാതെ നമുക്ക് നമ്മുടെ ഫോണ് നമ്മുടെ ഫോണുകളിലും നമ്മുടെ അറിവും ഉപയോഗിച്ച് നമുക്ക് ഈ നമ്മൾ നമ്മൾ എത്തിച്ചേരേണ്ട സാഹചര്യങ്ങളിലല്ലേ എത്തിച്ചേരേണ്ട സലത്ത് നമുക്കൊരു കറക്റ്റായി എത്തിച്ചേരാൻ സാധിക്കുകയും ചെയ്യും അതുപോലെതന്നെ ഈ മെഷീൻ വിമർത്തനങ്ങൾ നമ്മൾ എന്തേലും മണിക്കൂറിൽ പോയാലാണ് അല്ലേ എന്തേലും സ്പീഡിൽ പോയാലാണ് ഏതു രീതിയിൽ അല്ലെങ്കിൽ ട്രെയിനിലാവട്ടെ ബസ്സിലാവട്ടെ നടന്നിട്ട് ആവട്ടെ ഏതു രീതിയിൽ പോയാലാണ് എന്തു നേരത്തിനുള്ളിൽ ഇവിടെയെത്തുന്നതെന്ന് അറിയാനും നമ്മളെ സഹായിക്കുന്നുണ്ട് അതാണ് ഗൂഗിൾ മാപ്പുകൾ പോലെയുള്ള റൂട്ട് മാപ്പുകളിലെ ഏറ്റവും വലിയ വിശേഷണം അതുപോലെതന്നെ ചാറ്റ് ജി പി ടികൾ പോലെയുള്ള മെഷീൻ വിവർത്തനങ്ങൾ ഇത് ഞങ്ങളുടെ പഠനത്തിലാവട്ടെ ഏറ്റവും കൂടുതൽ ഐ ടി മേഘലകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഇതേറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് കാരണം അവർക്കു കൂടുതലായിട്ട് അവരുടെ കമ്പ്യൂട്ടർ ചിപ്പുകളാകട്ടെ അവരുണ്ടാക്കുന്ന ഓരോ കോഡുകൾ അവർ ഓരോ ദിവസങ്ങളും മണിക്കൂറുകളും ആഴ്ച്ചകളുമെടുത്ത് അവരുണ്ടാക്കുന്ന കോഡുകൾ അവർക്കിത്ര മണിക്കൂറുകൾ അല്ലെങ്കിൽ ഇത്ര നിമിഷംകൊണ്ട് അവർക്കുണ്ടാക്കിയെടുക്കാനും അതിലുള്ള ബഗ്ഗുകൾ കണ്ടുപിടിക്കാനും അതിലുള്ള തെറ്റുകൾ മാറ്റി ശരിയായ കാര്യങ്ങളതിലേക്ക് ഇട്ടുകൊടുത്ത് അവർക്ക് ഒരു ശരിയായ കാര്യം അതിലൂടെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും അത് ഈ മെഷീൻ വിവർത്തനത്തിൻ്റെ ഏറ്റവും വലിയൊരു ഒരു കാര്യമാണ് പിന്നെ ചില കാര്യങ്ങൾ ഈ മെഷീൻ വിവർത്തനങ്ങൾ തരുന്ന ഡീറ്റെയ്ലുകൾ വളരെ തെറ്റാവാൻ സാധ്യതയുണ്ട് കാരണം നമ്മളിട്ടു കൊടുക്കുന്ന കാര്യത്തെപ്പറ്റി മാത്രമാണ് ഇത് നമക്കുത്തരം നൽകുന്നത് അതിലുപരി നമുക്കൊരു രീതിയിലുള്ള കാര്യത്തിൽ ഇതുത്തരം നൽകുന്നില്ല ചാറ്റ് ജി പി ടി പോലെയുള്ള ആപ്പുകൾ നമുക്ക് തരുന്ന വിവരങ്ങൾ അത് അത്രയേറെ ഉത്തമമായോ അല്ലെ കറക്റ്റാവാനോ സാധ്യത കുറവാണ് അതാണ് ഈ മെഷീൻ വിവർത്തനത്തിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മ നമ്മുടെ ഇന്നത്തെ ഈ ലോകത്ത് മെഷീൻ വിവർത്തനത്തിനു മാത്രം നമ്മൾ ആശ്രയിച്ച് ജീവിച്ചാൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഈ ഈ മെഷീനുകളെ അല്ലെങ്കിൽ ആപ്പുകൾ അല്ലെങ്കിൽ ഫോണിനെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനെ മാത്രം നമ്മൾ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം അതിലേക്ക് മാത്രം ഉൾകൊള്ളുന്നൊരു ചെറിയ ഒരു സർക്കിളായി മാറുകയാണ് അതിലുപരി നമ്മുടെ ചിന്തയിലും നമ്മുടെ ആലോചനയിലും വെച്ചു നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ പ്രവർത്തിയും ജീവിതവും നമുക്കതിലേറെയുള്ളൊരു കാര്യത്തിലേക്ക് വളർത്തിയെടുക്കാനും നമ്മുടെ മനുഷ്യ ജീവിതത്തിൻ്റെ ചിന്തകൾക്കും കൃത്യതയും എന്തുവരെ ആണെന്ന് നമുക്ക് തിരിച്ചറിയാനും നമ്മളെ ഒട്ടേറെ അത് സഹായിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നു